ഞാൻ മൂന്നാർ സിർപ്പൂർ കാഗസ് നഗർ ബാംഗ്ലൂർ ഈ മൂന്ന് സ്ഥലങ്ങളാണ് ഞാൻ സന്ദർശിച്ചിട്ടുള്ളത് ആദ്യം തന്നെ മൂന്നാറിനെ കുറിച്ചു പറയുകയാണെങ്കിൽ അവിടുത്തെ തണുത്ത കാലാവസ്ഥ ആണെന്നെ ആകർഷിച്ചത് അവിടുത്തെ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടവും ഡാമുകളും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് അവിടുത്തെ വന്യജീവി സങ്കേതമായ ഇരവികുളം നാഷണൽ പാർക്ക് അവിടുത്തെ വരയാടുകളും നീലക്കുറിഞ്ഞിയും വളരെ മനോഹരമാണ് അതു പോലെതന്നെ മീശപ്പുലിമല മൂന്നാറിലെ ഒരു ട്രെക്കിംഗ് പോയിന്റാണ് അവിടെ നമുക്ക് രാത്രി പോയി ടെന്റടിച്ച് പിറ്റേ ദിവസം രാവിലെ സൂര്യോദയവും കണ്ടു മടങ്ങാനുള്ള സെറ്റപ്പ് ആക്കി തരുന്നതാണ് രണ്ടാമത്തെ എന്റെ പ്രിയ സ്ഥലം തെലുങ്കാനയിലെ സീർപ്പൂർ കാഗസ് നഗർ ആണ് ഹൈദെരാബാദിൽ നിന്നും ഏകദേശം നാലു കിലോമീറ്റർ യാത്രയുണ്ട് ട്രയിനിൽ അവിടുത്തെ ജെ കെ പേപ്പർ മിൽ ആണ് എന്റെ പ്രിയപ്പെട്ട സ്ഥലം അത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയാണ് അവിടുത്തെ ജെ കെ പേപ്പേർസ് എന്ന കമ്പിനിയുടെ ഒരു പേപ്പർ മില്ലാണ് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു മില്ലാണത് അതുപോലെതന്നെ മൂന്നാമതായി എനിക്ക് കർണാടകയിലെ ബാംഗ്ലൂർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവിടുത്തെ രാത്രി ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഏകദേശം ഒരു വർഷത്തിലധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരൊരു ഹൈടെക് മോഡേൺ സിറ്റിയാണ് അവിടെ പബ്ബുകളും ഡാൻസ് ബാറുകളും പിന്നെ അതുപോലെ തന്നെ മാളുകളും ഒക്കെയുണ്ട് ഇത്രയുമാണ് എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ